അതെ അതെ ആ ആ ആ പറയൂ

ആ ആ അ ആ ഹ ഹാ എത്ര കാലമായിട്ടുണ്ട് തലവേദന ആ ആ മരുന്ന് കഴിക്കുന്നു ആ ആ ആ ആ

ആ ആ ആ ആ ആ ആ ആ ജലദോഷം കഫക്കെട്ട് അങ്ങനെ എന്തെങ്കിലുമുണ്ടോ ആ ആ അ ഇതിന് മുമ്പ് ഇതിന് പരിശോധന നടത്തിയോ അതിൻ്റെ എന്തെങ്കിലും എം ആർ ഐ സ്കാനോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടായിരുന്നോ ആ ആ ആ ആ ആ ആ ആ ഇപ്പോൾ മുമ്പ് ടാബ്ലറ്റ് എടുത്ത് നോക്കിയിട്ട് കുറവില്ല ആ ആ ആ ആ ആ അതെ അല്ലേ ഇൻജെക്ഷൻ വച്ചിട്ട് വരുന്നത് ആ ആ അപ്പം ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ ഇതിന് മുൻപ് നിങ്ങൾ ഹോസ് ആ നമ്മൾ ഹോസ്പിറ്റല് ആ ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം നോക്കിയിട്ട് പറഞ്ഞ് തരാം ആ ആ ഹ അവിടെ ഉണ്ടായിരുന്നത് രാവിലെ പത്തു മണി മുതൽ രണ്ടു മണി വരെ പിന്നെ നാലു മണി മുതൽ ആറുമണി വരെയാണ് ശരിക്കും അവിടെ ഉള്ളത് ആ ആ അവിടെ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞാൽ ടോക്കൺ കിട്ടും അവരെ വിളിച്ചിട്ട് നിങ്ങൾ വരിക ആ